ആ അതെ പറയൂ ആ എന്തായിരുന്നു ഫോണിന് പറ്റിയത് ആ ഓക്കെ ആ ഓക്കെ ഫുൾ ആയിട്ട് ബ്ലാങ്കായോ അപ്പോൾ ഏത് ഏതായിരുന്നു കമ്പനി ആ വിവോയാണല്ലേ ആ അപ്പോൾ എത്ര ഒരു എത്രയായിട്ടുണ്ടാവും വാങ്ങിയിട്ടിപ്പോൾ ആ മോഡൽ ഇപ്പോൾ ഏതായിരുന്നു ലേറ്റസ്റ്റാണോ ആ ഇലവൻ അതിൻ്റെ അടുത്താണോ വരുന്നത് ആ ഓക്കെ ഇപ്പോൾ വന്നിട്ട് താഴെ വീണപ്പോഴാണ് ഇത് ഇങ്ങനെ ആയത് അല്ലേ ആ ഓക്കെ പിന്നെ ഇപ്പോൾ ഫുൾ ബ്ലാങ്ക് ലൈറ്റും വരയുണ്ട് അല്ലേ

ഓക്കെ അപ്പോൾ അതിനിപ്പോൾ ഒന്നാമത് ഒന്ന് ഉള്ളത് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ കുറച്ച് ചിലവുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രണ്ടായിരത്തി സംതിങ്ങിന് അടുത്ത് വരും പിന്നെ വീണിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കില് അത് അല്ലാണ്ട് നോക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുകയുള്ളു വേറെയെന്തെങ്കിലും കൊണ്ടാണോ പോയതെന്നറിയത്തില്ലല്ലോ ഡിസ്പ്ലേ ആ അപ്പോൾ രണ്ടായിരത്തിന് മേലെ എന്തായാലും വരും ആ പ്രൊഡക്ട് നിങ്ങള് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത് എങ്ങനെയായിരിക്കും പ്രോഡക്ടേ ഫോണേ നിങ്ങള് കൊണ്ടു തരികയാണോ അതോ അയച്ച് തരികയാണോ ചെയ്യുക ആ ഓക്കെ ഇപ്പോൾ ഒരൂ ഫൈവ് ഡേയ്സിന് ഉള്ളില് മാത്രമേ മാറ്റി തരാൻ പറ്റുള്ളു കാരണം ഇതിൻ്റെ കമ്പനി അങ്ങോട്ടേക്ക് അയച്ച് കൊടുത്തിട്ട് അവര് ഒറിജിനൽ ഡിസ്പ്ലേ തരണം അങ്ങനെ മാത്രമേ മാറ്റാൻ പറ്റുള്ളു ആ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഫോണിന് ബാറ്റെറി അങ്ങനെ ആ ബാറ്റെറി അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ ആ ഓക്കെ ആ എന്നാൽ ശരി നിങ്ങള് വരും ഒരഞ്ച് ദിവസം കഴിയണം കേട്ടോ ആ ഇവിടെ നിന്ന് വിളിക്കാം ആ നാളെ ഷോപ്പ് ഓപ്പൺ ആണ്